ആറ് ആറ് രണ്ടായിരത്തി ഒൻപത് എഴ് നാല് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല്